ഹലോ ഹലോ ആരായിരുന്നു അതെ അല്ലോ എങ്ങോട്ട് ആയിരുന്നു പോവേണ്ടത് ആ കുഴപ്പമില്ല എന്നത്തേക്കാണ് പോവേണ്ടത്

ആ ഡേറ്റ് ഒന്ന് പറയുമോ ആ എന്നാൽ കുഴപ്പമില്ല പോകുന്നതിന് പ്രശ്നമില്ല ആ കുഴപ്പമില്ല വണ്ടി ഓക്കെ ആണ് എല്ലാം ബുക്കും എല്ലാം സെറ്റാണ് ആ കുഴപ്പമില്ല ആ വരാം അതാണ് വീടിൻ്റെ ഒന്നു ഒന്ന് ഇട്ടു തരാമോ വീടി ൻ്റെ

ആ ആ എത്തി ആ പോര് നിങ്ങൾ രണ്ടുപേരെ ഉള്ളോ ആ കുഴപ്പമില്ല എല്ലാ സാധനങ്ങളും എടുത്തൊ മൂന്നാറിൽ ആവുമ്പം കുറേ തണുപ്പൊക്കെ ഉണ്ട് അപ്പം അത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ എടുത്തോ അങ്ങനെ നമുക്ക് പോവാം ആ ചാർജറൊക്കെ എടുത്തിട്ട് ഇറങ്ങിയാൽ മതി നമ്മൾക്ക് എന്തെങ്കിലും പുതക്കാനുള്ള ഷോളോ അതൊക്കെ എടുത്തോ റൂമിലൊക്കെ ഉപയോഗിക്കണം നല്ല തണുപ്പുള്ള സ്ഥലമാണ് ആ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ എനിക്ക് അവിടെ അറിയാം അവിടത്തെ ഹോട്ടലും കാര്യങ്ങളുമെല്ലാം അറിയാം അതൊക്കെ ഞാൻ ബുക്ക് ചെയ്തു ആ ഓക്കെ ആ അങ്ങനെ കുഴപ്പമില്ല നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാന്നെ നല്ല സ്ഥലങ്ങളാ അവിടെ നല്ല കാണാൻ നല്ല മഞ്ഞൊക്കെയുള്ള നല്ല സ്ഥലങ്ങളാണ് കുഴപ്പമില്ല ഞാൻ ഒത്തിരി പ്രാവശ്യം പോയിട്ടുള്ളതാണ് ഞാൻ ഒത്തിരി ഒത്തിരി പ്രാവശ്യം അവിടെ പോയിട്ടുള്ളതാണ് പലരും പോയിട്ടുണ്ട് നല്ലതാണ് എനിക്ക് നല്ല പരിചയവും നല്ല ഇഷ്ടമുള്ള സ്ഥലമാണ് മൂന്നാർ നല്ല തണുപ്പും നല്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് നല്ല മൃഗങ്ങളെയൊക്കെ അങ്ങനെ കാണണമെങ്കിൽ അതെല്ലാം നല്ല സ്ഥലങ്ങളാണ് കാണുന്നവയെല്ലാം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരികയില്ല എൻ്റെ കൂടെ നല്ല സുഖമായിട്ട് പോവാം മോളാണോ വരുന്നത് അല്ലെങ്കിൽ മോനാണോ ആ അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അടിച്ചു പൊളിച്ചു പോവാം ഞാൻ നിങ്ങളോടു കൂടി സഹകരിച്ചു നിൽക്കാം അങ്ങനെ കുഴപ്പമില്ല

ആ അങ്ങനെ നമ്മൾ ജീവിതത്തിൽ നല്ല കാലത്തൊക്കെ ടൂറിനൊക്കെ പോകണം നമ്മൾ അങ്ങനെ വീട് വീട് അങ്ങനെ ചെയ്യുകയല്ലേ അത് നമുക്ക് അടിമാലി ഭാഗം വഴി പോകാം അന്നേരം അവിടെ നമുക്ക് പെട്രോൾ പമ്പ് ഉണ്ട് നമ്മൾ ഇടുക്കി ആണെങ്കിൽ ആ ആന ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അത് നോക്കി നമ്മൾ പോയാൽ മതി അതിൻ്റെ ഇത് അനുസരിച്ചു അങ്ങനെ പെട്ടന്ന് അങ്ങനെ കാണുകയില്ല ആ അതൊന്നും കുഴപ്പമില്ല നല്ല രീതിയിൽ കൊണ്ടു പോവാം

ആ നമ്മൾ രാത്രിയിൽ രാത്രിക്കു മുമ്പ് നമ്മൾക്ക് അവിടെ നിന്ന് കടന്നു പോവുകയാണെങ്കിൽ ആനയൊക്കെ ഉള്ള ഇടത്ത് നിന്ന് നമുക്ക് അങ്ങനെയങ്ങ് അങ്ങനെയങ്ങ് പോകാം അങ്ങനെ കുഴപ്പം ഇല്ല ഒത്തിരി വിനോദ സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് മൂന്നാർ ആ അവരുടെ ഒരു ഇതാണ് കുഴപ്പമില്ലാത്ത പ്രദേശമാണ് ആ അല്ലേലും ഞാൻ അങ്ങനെ ഓവർസ്പീഡിൽ പോവുന്നത് അല്ല എനിക്ക് സ്പീഡിലാണ് അങ്ങനെ പോവുന്നെ ഇഷ്ട്ടമില്ലാത്ത ഒരാളാണ് അതുകൊണ്ടാണ് എന്നെ ആൾക്കാർ ഒത്തിരിപ്പേർ വിളിക്കുന്നത് ഞാൻ ഓവർസ്പീഡിൽ എങ്ങും പോവാറില്ല ഉറപ്പല്ലേ മാഡം അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ഞാൻ ശരിക്കിനും ഓട്ടോ അങ്ങനെ എത്രയാണ് പന്ത്രണ്ടു വർഷം ആയതാണ് ഓട്ടോ ഓടിച്ചു പരിചയമുണ്ട് ആ എൻ്റെ വീട്ടിൽ അപ്പനും അമ്മയും ഉണ്ട് രണ്ട് മക്കൾ ഉണ്ട് മ്മ് പിന്നെ ഭർത്താവ് ഉണ്ട് മ്മ് കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോകുന്നു അങ്ങനെയൊന്നും ഇല്ല ഭർത്താവും ഓട്ടോക്കാരനാണ് ഭർത്താവും ഇങ്ങനെ ഓട്ടോയ്ക്കകത്ത് പോവും അങ്ങനെ അത് പോവും മക്കൾ മക്കളുടെ ജോലിയായി അവർ അങ്ങനെ ജീവിക്കുന്നു പിന്നെ അപ്പനും അമ്മെയുമുണ്ട് അവർക്ക് അസുഖങ്ങൾ ഒന്നുമില്ല കുഴപ്പൊന്നുമില്ല അവർ സുഖം സുന്ദരമായിട്ട് ജീവിക്കുന്നു അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല ആ എൻ്റെ സ്വന്തം ഓട്ടോയാണ് ആ സ്വന്തം ഓട്ടോയാണ് മോഡല് നമ്മുടെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ളതാണ് ഉം ആ അങ്ങനെ കുഴപ്പൊന്നുമില്ല പിന്നെ എന്നാ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ നമ്മളെ വിളിച്ചു കൊണ്ട് പോകുമ്പോൾ ഓവറായിട്ട് ലോഡ് കയറ്റും അങ്ങനെ ഒക്കെ പ്രശ്നങ്ങൾ അങ്ങനെ ഒക്കെയുള്ളൂ അല്ലാതെ നമ്മൾക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പിന്നെ വലിയ പണി ഇപ്പം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ആ പണി തീർത്തു വയ്ക്കും വണ്ടിയുടെ അതുകൊണ്ട് എനിക്കു വലിയ പ്രശ്നം വരുന്നില്ല പണി അന്നേരം അന്നേരം ഉള്ളത് ഞാൻ പെൻഡിങ്ങിൽ ഇടുകയില്ല ആ നമ്മൾക്ക് ഇവടെ അടുത്തുള്ള ഈ മരിയ ഹോട്ടൽ ഉണ്ട് അവിടെ കയറാം അവിടെ ആണെങ്കിൽ നല്ല ആ നല്ല ചൂടുള്ള നല്ല ഫുഡ് കിട്ടും ഒത്തിരി തണുപ്പൊക്കെ നമുക്ക് ഇച്ചിരി തണുക്കാൻ തുടങ്ങിയതുകൊണ്ട് ചൂടുളള ഇത് നമ്മൾക്ക് ഭക്ഷണം കിട്ടും അവിടെ നല്ലെ വൃത്തിയും നല്ല ഇതാണ് ആ റൂമിന് എനിക്ക് അവിടെ ഒരു ആളെ അറിയാം നമ്മുടെ അടുത്തുള്ള ഒരു ഇതാണ് നമ്മുടെ കസിനാണ് അവരോട് വിളിച്ചത് നമ്മൾക്ക് നമ്മൾക്ക് ഉള്ള ബുക്ക് ഞാൻ ചെയ്യാം അതിനു പേടിക്കേണ്ട ആവശ്യമില്ല അതിന് അപ്പം അവർ റേറ്റ് കുറച്ചു തരും